വിരമിച്ചവർക്കും മുതിർന്നവർക്കും എങ്ങനെയൊക്കെയാണ് സാങ്കേതികവിദ്യ അതായത് ടി വി ഇൻ്റർനെറ്റ് ഇതൊക്കെ ഉപകാരപ്രദമാകുന്ന്

ഇപ്പോള് സോഷ്യൽ മീഡിയ വഴി ഇപ്പോള് പല പലതും നമുക്ക് പഠിക്കാനുണ്ട് ഇപ്പോള് ഇൻ്റെർനെറ്റിലാണെങ്കില് ഇപ്പോള് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തെങ്കി ചെയ്യാൻ തോന്നുകയാണെങ്കി ഇപ്പം അപ്പോഴാണ് ഇപ്പോള് യൂ ട്യൂബിൽ സെർച്ചേയ്താല് കിട്ടും കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ബിസിനസുകളും ഇപ്പോള് വാഴ വാഴ കൃഷി ചെയ്യണം അത് എങ്ങനെയാണ് മെയിൻറ്റൈൻ ചെയ്യാന് പോവേണ്ടത് ഏത് കാലഘട്ടത്തിലാണ് ആവശ്യം അങ്ങനെയൊക്കെ സെർച്ചേയ്യുമ്പോൾ കിട്ടും അപ്പോള് അതുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള ഇത് പഠിച്ച് അതിൽ നിന്നും കാണാൻ മാത്രമല്ല അത് അതേ അതിനെക്കുറിച്ച് പഠിച്ച് നമുക്ക് വേണമമങ്കില് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യാം പിന്നെ അതേപോലെതന്നെ ഇപ്പോള് ഞാൻ ഹോട്ടൽ മാനേജ്മെൻറ്റാണ് പഠിക്കുന്നത് ഇപ്പോള് ഇതേപോലെതന്നെ നമ്മളാ പഠിപ്പിക്കുന്ന സാര് റിട്ടേഡായ പലരൂണ്ട് അവർ സ്വന്തമായിട്ട് ബിസിനസ് അവര് ഇത് തുടങ്ങിയത് തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ വഴി പല മീഡിയ വഴിയും ഇൻ്റെർനെറ്റ് ഇതുവഴി പഠിച്ച് അവരെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ഫുഡ് ഫുഡ് മേക്കിങ് അങ്ങനത്തെ ബ്ലോഗുകള് കാര്യങ്ങളും ഉണ്ട് സ്വന്തമായിട്ട് ബ്ലോഗ് തുടങ്ങി അവർക്ക് ഇത് ഈ ഇതൊരു ഉപകാരപ്രദമാകുകയും ചെയ്യും പിന്നെ ഈ ടി വി ഇപ്പോള് പല ചാനലുകളും ഇപ്പോള് പലർക്കും അഭിനയിക്കാനുള്ള ചാൻസുണ്ട് ഇപ്പോള് നമ്മുടെ ഏരിയേതന്നെ സീരിയലിൽ അഭിനയിക്കുന്ന പലരൂണ്ട് ഈ അടുത്ത് പ്രദേശത്തുള്ള പലരും സീരിയൽ അഭിനയിക്കുന്നുണ്ട് ഈ അത് തന്നെ പലരുടെയും കലാപരമായ ഇതെല്ലാം ഈ ഇൻ്റെർനെറ്റിലൂടെ നമുക്ക് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കും അതേപോലെതന്നെ ഈ മുതിർന്നവർ മുതിർന്നവർക്ക് അവർക്കിങ്ങനെ അധികം നടക്കാനോ അങ്ങനെയൊന്നും പറ്റാത്തവരൊക്കെയുണ്ട് അപ്പോള് അവർക്കൊക്കെ ഈ ടി വി ഒരു വളരെ ആശയപ്രദമായ ഒന്നാണ് അവർക്ക് ഇൻട്രസ്റ്റിങ്ങായിരിക്കും ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് പിന്നെ പല ഈ പട്ടാളക്കാരൊക്കെ പട്ടാളക്കാരൊക്കെ മിക്കവർക്കും അവർക്കൊക്കെ ഈ പട്ടാളക്കാർ അവർക്കൊക്കെ വളരെ ഇൻട്രസ്റ്റിങ്ങായിട്ടുള്ള പല കാര്യങ്ങളും ഈ സോഷ്യൽ മീഡിയയിൽ കിട്ടും ഇൻ്റെർനെറ്റിലൂടെ തന്നെ ഇപ്പോള് അവരുടെ ഫോട്ടോകളായിരുന്നാലും അവരുടെ നല്ല അവരുടെ പ്രമുഖമായിട്ടുള്ള പല ആശയങ്ങളായിരുന്നാലും അതെല്ലാം ഈ ഇൻ്റെർനെറ്റിലൂടെ ഈ ലോകത്തിലേക്ക് പകർന്നു കൊടുക്കാന് പറ്റും പിന്നെ അതേപോലെതന്നെ അവർക്ക് പലതും ഈ സോഷ്യൽ മീഡിയ വഴി പഠിച്ചെടുക്കാന് പറ്റും അതായത് ഇപ്പോള് അവർക്ക് ഈ കഥ കൃതികളെഴുതാൻ ഇപ്പോള് ഇൻട്രസ്റ്റിങ് ഉണ്ടെങ്കില് അവരാ കൃതി എഴുതി സോഷ്യൽ മീഡിയ വഴി ഇപ്പോള് പലരും പാട്ടുപാടാനുള്ള കഴിവുണ്ട് പലർക്കും പാട്ടു പാടി സോഷ്യൽ മീഡിയേ ഇടുക അങ്ങനെ ഇത് ബ്ലോഗ് ചെയ്യാന് പറ്റും അങ്ങനെ വലിയ യൂ ട്യൂബർ യൂ ട്യൂബര് ഇൻസ്റ്റഗ്രാമർ അങ്ങനെ പലരും ആവാം ഇതിൽ കൂടെ തന്നെ നമുക്ക് പൈസ സമ്പാദിക്കാനും പറ്റും പൈസ വളരെ കുറഞ്ഞത് ഇതിലൂടെ തന്നെ പൈസ സമ്പാദിക്കുന്നുണ്ട് അതേപോലെതന്നെ ഇപ്പോള് വളരെ ഗെയിം ഗെയിമിങ്ങായിട്ടുള്ള ഇപ്പോള് വലിയവരും മുതിർന്നവര് ചെറിയവര് വലിയവര് അങ്ങനെയൊന്നുമില്ല എല്ലാവരും ഈ കളികൾ ഗെയിം അങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഗെയിം വിനോദമായിട്ടുള്ള പല കാര്യങ്ങൾ ഇപ്പോള് പാട്ട് കേൾക്കാനായിരുന്നാലും ഇതെല്ലാം ഇതിലെ വഴിയൂടെ അല്ല ടി വി ഇൻ്റെർനെറ്റെല്ലാം സഹായിക്കുന്നുണ്ട് വളരെ ഉപകാരപ്രദമാ അതുപോലെ തന്നെ പണ്ടുള്ള കാലങ്ങളില് ക്രിക്കറ്റ് പലരും ഇഷ്ടപ്പെടുന്നു ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോഴത്തെ ഉള്ള അവരായിരുന്നാലും പണ്ടുള്ളവരായിരുന്നാലും ക്രിക്കറ്റ് ഫുട് ബോൾ ചാമ്പ്യൻഷിപ്പ് അതൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ട് പലരും അതൊക്കെ അതൊക്കെ ടി വിയിലൂടെ വളരെ ടി വിയിലൂടെ കാണാൻ സാധിക്കും പിന്നേ അതേപോലെതന്നെ ഏറ്റവും വളരെ ഇൻട്രസ്റ്റിംഗ് ന്യൂസ് ന്യൂസ് അടുത്ത ഗ്രാമങ്ങളിലുള്ള ഇതൊക്കെ ടി വിയിലൂടെയൊക്കെ അറിയാന് കഴിയും